അതെ ജീനയാണ്

അത് എങ്ങനെയാണ് ചേച്ചി ഗ്രാമത്തിലോ ഗ്രാമപ്രദേശത്താണോ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി ടൗണ് ഏരിയ അഞ്ചലുവൊക്കെ ഉള്ളത് അങ്ങോട്ടൊക്കെയാണോ ഉദ്ദേശിക്കുന്നത്

ആവരുത് ആ വണ്ടി ഒക്കെ പോകുന്ന സൗകര്യത്തിനുള്ള ആഹ് ആ ആ ആ ആ ആ ആ ഇപ്പോഴെന്ന് വെച്ചാൽ അറിയാമല്ലോ വസ്തുവിനൊക്കെ നല്ല വില ഉള്ള സമയമാണ് അതിനനുസരിച്ചുള്ള റേറ്റ് ഒക്കെ ആകും സെന്റിനൊക്കെ നല്ല വില ഒക്കെ ആകും മ് ഇപ്പോൾ എങ് എങ്ങനെയാണ് വില എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്പോലെ വീടൊക്കെ ആകുമ്പോഴത്തേക്ക് അതനുസരിച്ച് ഒരു സെന്റിന് നമുക്ക് ഒരു ഒന്നര ലക്ഷം ഒക്കെ അങ്ങനെ ഒക്കെ ആകും അതൊക്കെ നമുക്ക് ഒരു വീടൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനയൊക്കെ അല്ലേ നമുക്ക് നോക്കാന് പറ്റൂ ഒരു വസ്തു മേടിച്ച് വീട് വെക്കുമ്പോൾ നമുക്ക് അയ്യോ അയ് അതൊന്നും അതൊന്നും പറ്റത്തില്ല കൊള്ളാം തരിശു ഭൂമിക്കു പോലും മുപ്പത് ഇല്ല അങ്ങനൊന്നും പറയരുത് മേഡം നമ്മൾ ഇപ്പോൾ ഒരു കച്ചവടത്തിനിരിക്കുമ്പോൾ അതിനൊക്കെ ഓരോരോ കാര്യങ്ങളൊക്കെയുണ്ട് അതിനനുസരിച്ചേ കച്ചവടം മുന്നോട്ട് പോകത്തുള്ളൂ ഇപ്പം നിങ്ങൾക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാണ് പുറത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്ക് മുപ്പതിനായിരത്തിനൊന്നും ഒരു വസ്തു കിട്ടത്തില്ല മേടം എന്തുവാണ് ഈ പറയുന്നത് ഉയ് എവിടെ നിന്നാണ് ഒരു വീട് വെക്കണമെങ്കിൽ വേണമല്ലോ മേടം മുപ്പത് ലക്ഷം രൂപ മേടം ഈ ലോകത്തൊന്നുവല്ലേ ജീവിക്കുന്നത് ഒരു സെന്റിന് മുപ്പതിനായിരം രൂപയ്ക്ക് എവിടെ കിട്ടും ആ മേടം ഒന്ന് ചോദിച്ച് നോക്ക് ചുറ്റുവട്ടത്തൊക്കെ കു കുഗ്രാമങ്ങളില് പോലും കിട്ടത്തില്ല മേടം ഒര് പിന്നെ സെന്റിന് നമുക്ക് നോക്കിയാൽ ഒരു അറുപത് എഴുപത് ഒക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒക്കെ ഉള്ളത് നോക്കാം എന്റെ കസ്റ്റഡിയിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഒക്കെ ഉണ്ട് പ്ലോട്ടൊക്കെ അമ്പത് സെന്റ് അറുപത് സെന്റ് പിന്നെ ഒരേക്കറുണ്ട് അതൊക്കെ മേടം വന്ന് നോക്ക് അതൊക്കെ നല്ല സ്ഥലങ്ങളാണ് റോഡ് സൈഡിലൊക്കെ ആകുമ്പൊഴത്തേക്കും വസ്തുവിന് വിലയൊക്കെ അതിനനുസരിച്ച് കൂടും പിന്നെ പിന്നെ ചെറിയൊരു വണ്ടി റ്റു വീലര് ഒക്കെ പോകാനുള്ള ആണെന്നുടെങ്കിൽ ഒര് അമ്പതിനായിരം രൂപക്കൊക്കെ സെന്റിന് ഒപ്പിക്കാം ആ സെന്റിന് റ്റു വീലറൊക്കെ മാത്രമേ കയറി പോകത്തുള്ളൂ പക്ഷെ വലിയ വണ്ടി ലോറി ഒക്കെ ഉള്ളതാണെങ്കിൽ ആ മേടം എവിടെ നിക്കുവ വീട്ടിലോട്ട് എന്നെ ഒന്ന് വിളിച്ചിട്ട് നാളെ ഒന്ന് നമുക്ക് ഒന്ന് മീറ്റ് ചെയ്യാം അപ്പഴേ രണ്ട് മൂന്ന് സ്ഥലങ്ങള് ഞാന് കൊണ്ട് വന്ന് കാണിക്കാം ആ അല്ലെ വ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് മേടം മേടത്തിന് വസ്തുവും വേണം വന്ന് കാണാന് സമയം ഇല്ലായെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ

ആ ആ ആ കാണും കാണും അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ആ ഒര് ദിവസം തന്നെ നമുക്ക് രണ്ട് മൂന്ന് ഇടം പോയി നോക്കിയിട്ട് നമുക്ക് ഒന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം അവരോടൊന്നു പറഞ്ഞ് നമുക്ക് കുറച്ചൊക്കെ എടുക്കാൻ നോക്കാം കമ്മീഷനൊക്കെ അതൊക്കെ നമുക്ക് ആദ്യം അതിന്റെ ഇത് നടക്കട്ടെ മേടം അതിന്റെ ഡീലിങ്ങ് ഒക്കെ ഒന്ന് നടക്കട്ടെ എന്നിട്ട് അതനുസരിച്ച് ഞാന് പറയാം അല്ല അല്ല മേടം അതൊന്നും അറിയണ്ട മേടം ഇങ്ങ് വന്നാൽ മതി വന്നിട്ട് നമുക്ക് അവര് ആ ഉടമസ്ഥൻ ആയിട്ട് ഇരുന്നൊന്ന് നമുക്ക് സംസാരിച്ചിട്ട് നമുക്ക് അതനുസരിച്ച് നാട്ട് നടപ്പനുസരിച്ച് ഒര് തുക എനിക്ക് തന്നാൽ മതി ആ ശരി മേടം ശരി എന്നാൽ ആ വന്നാൽ മതി ഈ നമ്പര് തന്നെ അല്ലെ ഞാന് വിളിച്ചോളാം ആ ഓക്കെ ഓക്കെ